സെൻ്റ് ജോസഫ് ചർച്ച് പാളയം ട്രിവാൻഡ്രം ഭീമാപള്ളി ട്രിവാൻഡ്രം ലൂർദ് പള്ളി പി എം ജി ട്രിവാൻഡ്രം വെട്ട്കാട് പള്ളി തിരുവനന്തപുരം കന്യാകുമ അല്ല അതു വേറെ സ്റ്റേറ്റാണ് പിന്നെ ശിവഗിരി മഠം വർക്കല ഭീമ ഇടപ്പള്ളി സെൻ്റ് ജോർജ് ദേവാലയം കൊച്ചി എടത്ത്വാ പള്ളി സെൻ്റ് ജോർജ് ദേവാലയം എടത്ത്വ പാറേൽപള്ളി ചങ്ങനാശ്ശേരി കപൂചിനാശ്രമം ഗദ്സമനി ആശ്രമം മധുമൂല വാഴപ്പള്ളി സി എം ഐ ആശ്രമം വാന്നാനം വടവാത്തൂർ പള്ളി പടയ്ങ്ങാനം പള്ളി കൊടമാളൂർ പള്ളി സേപ്രാസ്യാ മേടപള്ളി ഒല്ലൂർ ഉണ്ണീശോ പള്ളി ചേർപ്പുങ്കൽ തുയ്യമ്പള്ളി അർത്തുങ്കൽ പള്ളി സെൻ്റ് സെബ സെബാസ്റ്റ്യാനോ ചർച്ച് അർത്തുങ്കൽ ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീ മഹാദേവ ക്ഷേത്രമാണോ അറിയത്തില്ല അമ്പലപ്പുഴ വൈക്കം ക്ഷേത്രം പിന്നെ ഗുരുവായൂർ ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം ശബരിമല റൂസ് പള്ളി റൂസ് നടക്കുന്ന മുസ്ലീം ദേവോന്ത മോസ്ക്ക് ചന്ദനക്കാവ് പള്ളി മുസ്ലീങ്ങളുടെ ആണ് തോന്നുന്നു ഭീമാപള്ളി റൂസ് അതേ കേട്ടിട്ടുള്ളു ട്രിവാൻഡ്രമാണ് തോന്നുന്നു പിന്നേതാണ് അറിയാൻ വയ്യ പാറേപ്പള്ളി തീർത്ഥ ദേവാലയം ചെത്തിപ്പുഴ ആയൂർ ഹൊറോനാ പള്ളി കൊല്ലം സെൻ്റ് തോമസ് ചർച്ച് തൂയ്യമ്പള്ളി വാടിപ്പള്ളി ഐ എം എസ് പ്രാർത്ഥനാ ആലയം ത്ത് ആലപ്പുഴ അട്ടപ്പാടി ആശ്രമം കുറവലങ്ങാട് പള്ളി പിന്നെ ത്രിക്കടിത്താനം പള്ളി സെൻ്റ് ജോർജ് ചർച്ച് മുട്ടാറ് സെൻ്റ് ജോസഫ് ചർച്ച് ഫിൽഗിരി ആര്യങ്കാവ് കത്തോലിക്കാ പള്ളി സെൻ സെൻ്റ് മേരീസ് ചർച്ച് ആയൂര് ലത്തീൻ പള്ളി സെൻ്റ് ജോർജ് പള്ളി ആയൂര് ശ്രീ ശ്രീകൃഷ്ണാ ക്ഷേത്രം ആയൂര് ശ്രീ മഞ്ഞിപ്പുഴ ക്ഷേത്രം കോട്ടക്കൽ റോക്ക് ഗുഹാ ക്ഷേത്രം കറ്റിക്കൽ